ഇപ്പോൾ നമ്മള് ഒരു മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് നേരിടേണ്ടി വരും അപ്പം അതൊക്കെ നമ്മള് തരണം ചെയ്തു പോയികഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു മീൻ പിടിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും അറിയില്ല നമ്മൾ ഒരു മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ഇറങ്ങുന്നത് രാത്രിയാണ് കാരണം രാത്രിയാണ് കൂടുതലായിട്ട് മീനുകള് മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു സമയം പകല് പോയി കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള മീനും കാര്യങ്ങളും ഒന്നും നമുക്കങ്ങനെ കിട്ടില്ല കിട്ടും ബട്ട് എന്നാലും നമുക്ക് കൂടുതലായിട്ടുള്ള മീന് കിട്ടണമെങ്കില് നല്ല വലിയ മീന് കിട്ടണമെങ്കില് നമ്മള് കൂടുതലായിട്ടും രാത്രി സമയങ്ങളിലും മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ രാത്രിയാണ് മീനുകളെല്ലാം മുകളിലോട്ട് പൊങ്ങി വരുന്നത് അതാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് വേണം നമ്മള് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലയെറിയാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മള് ശ്രദ്ധിക്കണം നമ്മള് കൂടുതല് ഒച്ചയുണ്ടാക്കി പോയി കഴിഞ്ഞാല് മീനുകള് മീനിൻ്റെ പാട്ടിന് പോകും അപ്പം അതുകൊണ്ട് നമ്മള് ഒച്ചയില്ലാണ്ട് കടലിലൊക്കെ പോകുന്ന സമയത്ത് എൻജിനെല്ലാം ഓഫാക്കി കുറച്ച് നേരം വെയ്റ്റ് ചെയ്യുക മീനുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വേണം നമ്മള് വലയിടാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമെ നമുക്ക് നല്ല രീതിയിലുള്ള മീനും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളു ഇതൊന്ന് ശ്രമിച്ചു നോക്കിയാല് എല്ലാവർക്കും മീനും കാര്യങ്ങളൊക്കെ ലഭിക്കും